ആ ഹലോ ആ പറഞ്ഞോളൂ ആ ഇത് തൃപ്തി ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആണേ

ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ നിങ്ങൾ സംസാരിച്ചോളൂ കല്ല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ ആ നമുക്ക് ഇവിടെ ബ്യൂട്ടീഷൻ തൊട്ട് തുടങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കാറ്ററിംഗ് സെക്ഷൻ ഉണ്ട് എല്ലാം ഒരു കല്ല്യാണത്തിൻ്റെ മുഴുവൻ വർക്ക് ആ എല്ലാം ഉണ്ട് ഒരു കല്ല്യാണത്തിൻ്റെ മുഴുവൻ വർക്ക് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് ആ ആ നിങ്ങൾ ഒന്നും അറിയണ്ട കാര്യം ഇല്ല ഡെക്കറേഷനും ബാക്കി സാധനങ്ങളും ബ്യൂട്ടീഷ്യൻ്റെ സാധനങ്ങളും എല്ലാം നമ്മൾ തന്നെ എടുത്തോളാം ഫുഡിൻ്റെ കാര്യം അറിയേണ്ട എല്ലാം നമ്മൾ തന്നെ ചെയ്തോളാം എന്നത്തേക്ക് ആയിരുന്നു മാര്യേജ് മാർച്ച് ഏഴ് ആ എവിടെ വെച്ച് ആയിരുന്നു

എന്തോ ക്ലിയർ ആയില്ലല്ലോ ആ ഭാമ ഓഡിറ്റോറിയത്തിൽ ആ ആ ആ ആ കറക്റ്റ് എനിക്ക് ആ ഓഡിറ്റോറിയത്തിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഇങ്ങ് സെൻഡ് ചെയ്യണം ആ ആ ആണ് ആ ഇത് തന്നെ ആണ് വാട്ട്സ്ആപ്പ് നമ്പർ പിന്നെ തലേ ദിവസത്തെ മെഹന്തി ഹൽദി അങ്ങനത്തെ ചടങ്ങ് എന്തെങ്കിലും ഉണ്ടോ ആ ഹിന്ദു വെഡ്ഡിംഗ് ആണോ ആ ആ ആ ആ അപ്പോൾ ഹൽദി ചടങ്ങ് തലേ ദിവസം ആണോ അതെയോ അതിൻ്റെയും തലേ ദിവസം ആണോ തലേ ദിവസം മെഹന്തി വരും ആ അതെ അല്ലേ ആ പാർട്ടി ഉണ്ട് അത് എപ്പോഴാണ് രാവിലെ ആണോ വൈകീട്ടാണോ വൈകീട്ടത്തേക്കാണ് അല്ലേ അപ്പോൾ വൈകീട്ടത്തേക്ക് ആവുമ്പോൾ നമുക്ക് എന്ത് തരം ഫുഡ് ആണ് വേണ്ടത് സദ്യ ആണോ അതെയോ ഫ്രൈഡ് റൈസോ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ആണോ ആ അത് മതി അല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ ആ ഡെസേർട്ട്സ് എന്തെങ്കിലും ചെയ്യാം ഞാൻ അപ്പോൾ പിറ്റേ ദിവസം മെഹന്തി ഫംഗ്ഷൻ ഉണ്ട് നമുക്ക് മെഹന്തി ഇടുന്ന ആൾ നമ്മുടെ ആ കേക്ക് കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ആ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നതല്ല നമ്മൾ പുറത്ത് ഓർഡർ കൊടുക്കുകയാണ് അവർ നമുക്ക് നമ്മൾ പറയുന്നത് പോലെ ചെയ്ത് തരും ആ ആ എല്ലാം തന്നാൽ മതി എമൗണ്ട് എല്ലാം കൂടെ ഒരു അറുപത് രൂപ അറുപതിനായിരം ഉം ഉം പിന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ അന്നേരം കുറച്ച് തരും ആ ഹാ ആ ഡിസ്കൗണ്ട് ചെയ്യാൻ നോക്കാം പിന്നെ ട്രഡീഷണൽ ആയിട്ടാണോ നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ നടത്തേണ്ടത്

ആ ആ ഓക്കെ ഓക്കെ മതി അല്ലേ ആ ആ ഓക്കെ ഓക്കെ അതൊക്കെ നമ്മൾ അത് വന്ന് ചെയ്തോളാം ആ പിന്നെ എത്ര പേർക്കുള്ള ഫുഡ് ആയിരുന്നു വേണ്ടത് ആ അത്രയും മതിയോ ആ ഹൽദിക്കോ ആ എന്നാലും നമുക്ക് ഏകദേശം ഒരു കണക്ക് വേണം മാഡം ആ നിങ്ങൾ എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്ത് തന്നാൽ മതി ആ ആ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സ് നമുക്ക് റെൻറ്റിന് എടുക്കാം അതൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആ നിങ്ങൾക്ക് ഏത് മോഡൽ ആണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നത്തേനാണ് വരേണ്ടതെന്നോ നാളെ പറ്റുമോ ആ കല്ല്യാണം മാർച്ച് ഏഴിന് ആവുമ്പം ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കാൻ മാർച്ച് ഒന്നാം തീയതി ഒന്ന് വരണം ആ നമ്മൾ ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് വലിയ റെൻറ്റ് വാങ്ങിക്കുന്നില്ല അത് നിങ്ങളുടെ അളവ് ഒക്കെ അനുസരിച്ച് ഇനി ആ അളവിന് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ സ്റ്റിച്ച് ചെയ്യാം

വെൽക്കം ചെയ്യാൻ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ആ രണ്ട് പേർ പോരേ ആ ശരി പിന്നെ പിന്നെ മറ്റ് കാര്യങ്ങൾ ഡെക്കറേഷൻ ആ ആ ഇട്ടേക്കാം അതിൽ വാട്ട്സ്ആപ്പിൽ ഇട്ടേക്കാം ആ പിന്നെ നിങ്ങൾ മാല ഒന്നും വാങ്ങിക്കേണ്ട പൂമാല അതൊക്കെ നമ്മൾ കൊണ്ടുവന്നോളാം

പിന്നെ മറ്റ് കാര്യങ്ങൾ ആ മെഹന്തി ഇടാൻ മെഹന്തി ഇടുന്ന ആൾ നമ്മള അടുത്തുണ്ട് അപ്പോൾ ഡിസൈൻ നിങ്ങൾ ഇട്ട് തരുവാണെങ്കിൽ നമ്മൾ ആളെ കൊണ്ടുവന്ന് ഇടീച്ച് തന്നേക്കാം പിന്നെ ആ പിന്നെ വെഡ്ഡിംഗ് സാരിക്ക് ഡ ഡിസൈൻ പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ടോ ആണോ ആ ആ ശരി ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉം ആ കൊടുത്തിട്ടുണ്ടല്ലേ ആ ആ ആ ആ അപ്പോൾ എന്നാൽ കസിൻസിനൊക്കെ വേണ്ടുന്ന ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുക്കാം ഉണ്ട് ആ ആ പറഞ്ഞാൽ മതി ആ ഞാൻ നാളെ തന്നെ ഇട്ടേക്കാം ഉം ഓക്കെ ആ ശരി ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ മാഡം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ശരി മാഡം ഓക്കെ താങ്ക് യൂ ആ